ഇവിടെ ഉള്ള അടുത്താണ് സ്കൂളുകൾ ആണെങ്കിലും മറ്റു സ്ഥാപനങ്ങൾ ആണെങ്കിലും ഇവിടെ അടുത്ത് അടുത്ത് ആണ് ഉള്ളത് ഒത്തിരി ദൂരം ഇല്ല അതേപോലെ അവിടെ പോയിട്ട് പഠിക്കാൻ കഴിയുന്നതും മറ്റുള്ളവരുമായിട്ടുള്ള ഇതും സംഭാഷണങ്ങളും എല്ലാം വ്യത്യാസമാണ് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നതും എല്ലാം അതേപോലെ അവിടെ ഇപ്പോൾ പഠിക്കാൻ പറ്റുകയാണെങ്കിലും നല്ല ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ അവിടെ ഉള്ള നല്ല നല്ല റൂമുകളിലും ക്ലാസ്സ് റൂമുകൾ ഉള്ള സാഹചര്യങ്ങളും അതേപോലെ ബാത്ത് റൂം ആയാലും അങ്ങനെ നല്ല ചുറ്റ്പാട് ഗ്രൗണ്ട് കളിക്കാൻ ആണെങ്കിലും അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ഉണ്ട് അവിടെ അവർ നല്ല രീതിയിൽ ആണ് അവിടെ എല്ലാ സ്കൂളുകളും നല്ല രീതിയിലാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നമ്മുടെ അടുത്ത് അടുത്ത് ഉള്ളതാണെങ്കിലും നല്ല രീതിയിൽ ആണ് എല്ലാം നടന്നു പോകുന്നത്